ഹലോ ആ ബീന ടെയ്ലറിംഗ് സെൻ്റർ അല്ലേ ആ ഞങ്ങളുടെ ഈ സ്കൂളിലേ വൈഷ്ണവ സ്കൂളിലെ കുറച്ച് യൂണിഫോം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുനൂറ്റമ്പത് പിള്ളേരുടെ യൂണിഫോം അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നേ അത് തയ്ച്ചോ എങ്ങനെയാണ് എന്തായി കാര്യങ്ങളൊക്കെ ആ അപ്പം പി നമുക്കിപ്പം രണ്ടാഴ്ചയും കൂടിയുള്ളൂ ഇത്രയും രണ്ടാഴ്ചയും കൂടെ സമയം ഉള്ളൂ സ്കൂൾ ഒക്കെ തുറക്കാറായില്ലേ എങ്ങനെയാണ് പെട്ടെന്ന് ഒന്ന് തയ്ച്ച് തരുമോ ആ അപ്പോൾ ഈ ഇപ്പം ഇതുവരെ നിങ്ങൾ തുടങ്ങിയില്ലേ തയ്ക്കാൻ തുടങ്ങിയില്ലേ ആ എത്ര പേരുണ്ട് തയ്യൽക്കാർ ഉണ്ടോ ആ അപ്പോൾ എല്ലാവരും കൂടെ പെട്ടെന്ന് ഇരുന്ന് തയ്ച്ച് ആ മഴയൊക്കെ ആയത് കൊണ്ടല്ലേ എന്നാലുമേ നമുക്ക് സ്കൂൾ ഒക്കെ തുറക്കുമ്പോഴത്തേക്കേ പിള്ളേർക്കൊക്കെ യൂണിഫോം വേണമല്ലോ അപ്പോൾ എല്ലാവർക്കും ആ ബോയ്സിൻ്റെയും ബോയ്സിൻ്റെ ഗേൾസിൻ്റെ ഉണ്ടല്ലോ തന്നിട്ടുണ്ടല്ലോ അല്ലേ എല്ലാം ഒന്ന് പെട്ടെന്നേ തയ്ച്ചൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ആ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഇട്ടോണ്ടേ യൂണിഫോം ഇട്ട് വരേണ്ടത് കൊണ്ടാണ് ആ അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ

തയ്യൽക്കൂലി എങ്ങനെ ബോയ്സിൻറേനും ഗേൾസിൻറേനും സെയിം റേറ്റ് ആണോ ആണോ സെയിം റേറ്റ് അറുനൂറ് രൂപയോ അപ്പോൾ ഇത്രയും ഒന്നിച്ച് തയ്പ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാൻ കുറയ്ക്കാൻ പറ്റില്ലേ എന്നാലും നിങ്ങൾ ഒന്നുകൂടെ ഗേൾസിൻറേനൊക്കെയും ഇത് ഇത്തിരി കൂടെയൊക്കെ കുറയ്ക്കാമല്ലോ ഫ്രോക്ക് ഒക്കെ അല്ലേ ആ എന്നാലും എന്നാലും മാഡം ഒന്ന് നോക്ക് കുറച്ചുകൂടെ ഒക്കെ കുറയ്ക്കുവാണെങ്കിൽ ഞങ്ങൾക്കിത് അതൊന്നിച്ച് ആ അല്ല ഇത്രയും പിള്ളേരുടെ ഒന്നിച്ച് തരുമ്പോഴത്തേക്കേ എന്തെങ്കിലുമൊക്കെ ഒരു അടുത്ത വർഷം നിങ്ങൾക്ക് തന്നെ തയ്യൽ തരാം

ആ ഈ സെ തയ്യൽ സെൻ്റർ നല്ല തയ്യൽ ആണെന്നൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ തന്നത് അപ്പം ഇത്രയും പിള്ളേരെ ഒന്നിച്ച് തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കുറച്ച് തുക കുറയ്ക്കുമല്ലോ എന്ന് ഓർത്തായിരുന്നു ആ എന്നാൽ എത്രയും വേഗം തരാൻ നോക്കണേ

രണ്ട് ദിവസം ആ കറണ്ട് ഒക്കെ ഇല്ല ആ ഇപ്പം മഴയുടെ ഒക്കെ സമയമായി ആ

ആ അത് കുഴപ്പം ഇല്ല ഇത്രയും പേരുടെ ഒന്ന് തുന്നിത്തരണം അതുകൊണ്ടാണേ പറഞ്ഞതേ ആ അതിന് ശരി എന്നാൽ ഓക്കെ ഓക്കെ ഓക്കെ ആ